ഹലോ ആ പറഞ്ഞോളു അതെ അതെ പറഞ്ഞോളു ഓക്കെ എത്ര പഴക്കമുള്ള ഏ സിയണ് എത്ര നാളായി വെച്ചിട്ടേസി ഓക്കെ ഏതാണ് കമ്പനി ഏ സീടെ വേൾപ്പൂളിൻ്റെ ഏ സിയന്നാണൊ അപ്പോൾ എന്നാണ് ഇതിന് മുമ്പ് വാങ്ങിക്കഴിഞ്ഞിട്ട് എത്ര തവണ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഏ സി ഫിൽറ്റ്റൂരി ക്ലീൻ ചെയ്തിട്ടുണ്ടൊ എപ്പോഴെങ്കിലും ആ അപ്പം ചിലപ്പം അതിൻ്റെയാകാം പ്രശ്നം ലൈക് എങ്ങനെയാണീ കൂളിങ്ങ് ഇല്ലായെന്ന് പറയുന്നത് ഓണാക്കുമ്പത്തൊട്ടേ തീരെ തണുക്കുന്നില്ലാന്നാണോ അതോ ഓക്കെ അപ്പോൾ തണുപ്പ് കുറച്ചിട്ടാ മേലെയാണ് തണുക്കുന്നൊള്ളതേ പോലെ തന്നെ അപ്പോൾ ചിലപ്പമത് ഫിൽറ്റർ കൂടീട്ടുണ്ട് വീട്ടിൽ എത്ര ഏ സിയുണ്ട് ഓക്കെ അപ്പമിത് ഈ ഒരേസിക്ക് മാത്രമാണോ ഇത് ഇങ്ങനത്തൊരു പ്രശ്നമുള്ളു അപ്പോൾ ചിലപ്പം കറൻറ്റിൻ്റെ സപ്പ്ളേടെ എന്തെങ്കിലും ഇഷ്യു കുഴപ്പങ്ങളാവാം അല്ലാത് ഞാൻ വന്ന് നോക്കാം എന്തായാലും അല്ലെങ്കിൽ മിക്കവാറും സാധ്യതയുള്ളത് ഈ ഫിൽറ്ററിൻ്റെ കരടോ പൊടിയോ കയറി അടഞ്ഞേയ്ൻ്റെയാകാം അപ്പോൾ ആ ഫിൽറ്ററൊന്നൂരി ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ കുഴപ്പം മാറേണ്ടതാണ് ചിലപ്പോൾ ഗ്യാസ്സ് തീർന്നതിൻ്റെയാകാം അങ്ങനെയാണെങ്കിൽ കുറച്ചൂടി ചിലവാക്ക് വരാം ഞാൻ അതിന്റെ പോലുള്ള സമയെടുക്കും ഗ്യാസിൻ്റെ ആണെങ്കിൽ എന്തായാലും ഞാനൊന്ന് വന്ന് നോക്കാം അപ്പോൾ എന്നായിരിക്കും വീട്ടിലുണ്ടാവുക അടുത്താഴ്ച്ച ഏതാ ദിവസം ഏത് ദിവസമാണ് വരേണ്ടത് അടുത്ത രണ്ടാന്തി വന്നാൽ കുഴപ്പമുണ്ടാകുവോ ഓക്കെ അപ്പോൾ എനിയ്ക്കൊരൂ ഞാനൊരു ഏ ഒരാറ് മണി ഏഴ് മണി ആകുമ്പത്തേനും വരാം ഒരു രണ്ടാന്തി വൈകുന്നേരത്തെ ഏഴ് മണിയാകുമ്പത്തേനും വരാം അപ്പോൾ എന്നിട്ട് അവർ വന്നിട്ട് ഒന്ന് നോക്ക് ഗ്യാസ്സ് തീർന്നതാണെങ്കിൽ ഒരൂ മൂവായിരത്തഞ്ഞൂറ് രൂപ അടുപ്പിച്ച് ചിലവ് വരും ഒരു ഫിൽറ്ററിപ്പം വൃത്തിയാക്കാനൊക്കെ ഉള്ളെങ്കിൽ ഒരായിരം രൂപയിൽ താഴെയക്കെ വരുള്ളു ആയിരം രൂപ ആയിരത്തിരുന്നൂറ് രൂപക്കെ വരൂള്ളു അല്ലല്ലല്ല സർവീസ്സ് കഴിഞ്ഞു സർവീസ്സ് കഴിഞ്ഞിട്ട് തന്നാൽ മതി വേറെ വേറെ പ്രശ്നം ബുക്കിങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എത്തിക്കോളാം അന്നെത്തിക്കോളാം അന്ന് വേറെയൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടേക്കാം ഈയൊരു കേസിൽ വേ വേറെന്തേലും പ്രശ്നമുണ്ടൊ ബ ബാറ്റ്റീടെ കുഴപ്പല്ലല്ലോല്ലെ ബാറ്റ്റി മാറ്റിയിട്ട് നോക്കീല്ലായിരുന്നോ ആ ആ അപ്പോൾ ചിലപ്പം ബ റിമോട്ട് പോയതായിരിക്കും അതും വേൾപ്പൂൾ ന്റെ തന്നെയാണ് വേൾപൂളന്നെയാണ് അപ്പം അതിന്റെ ബാറ്റ് അതിന്റെ പുതിയ റിമോട്ട് ഞാൻ കൊണ്ട് വരാം റിമോട്ടിനേകദേശം ഒരായിരം രൂപ അടുപ്പിച്ച് ചിലവ് വരും അപ്പോൾ ഞാനെന്തായാലും രണ്ടാതീ വൈകുന്നേരവെത്താം എത്തും ശരി അ